ആരോഗ്യപൂർണ്ണമായ കുറച്ചു വിഭവങ്ങൾന്നു പറയുന്നത് ചീര പയർ പിന്നെ കടല അങ്ങനത്തെ ധാന്യപദാർത്ഥം ധാന്യം നമ്മുടെ പുറത്തുള്ള ഫുഡിനെകാട്ടും ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് തക്കാളി അങ്ങനത്തെ എല്ലാം പുറത്ത്ള്ളതിലോക്കെ ഫ്രൂട്സ് ആണെങ്കിലും ഏതാണെങ്കിലും പുറത്ത്ള്ളതിലൊക്കെ വിഷങ്ങൾ ഉണ്ടാവും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത് വിത്തുകളുപയോഗിച്ച് വീട്ടിൽ ഉണ്ടാക്കിയാൽ നല്ല നല്ല വിഷങ്ങൾ വളക്കൂറുള്ള നല്ല വളങ്ങൾ ഒന്നും ഇല്ലാത്ത നല്ല പച്ചക്കറികളും ഫ്രൂട്സും ഒക്കെ കഴിക്കാൻ കഴിയും ചീരയുണ്ട് പിന്നെ പയറുണ്ട് തക്കാളി അങ്ങനത്തെ എല്ലാ തരം പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്സ് ഐറ്റംസ് ആണെങ്കിലൊക്കെ വീട്ടിൽ ഉണ്ടാകുന്നയാണ് ഏറ്റവും നല്ലത് എൻ്റെ വീട്ടിൽ ചീര തക്കാളി പയർ അങ്ങനത്ത ധാരാളം പച്ചക്കറി ഐറ്റംസ് ഒക്കെ എൻ്റെ വീട്ടിൽ ഉണ്ട് ഞങ്ങൾ അതെന്നെയാണ് കഴിക്കാറ്